എൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങള് എന്താണെന്ന് വെച്ചാല് ഞാന് മുമ്പ് ഭയങ്കര തടിച്ചിട്ടൊക്കെ ആയിരുന്നു എന്നുവച്ചാല് നമ്മള് അപ്പോൾ തടിച്ച് പൊണ്ണൻ കണക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ലെവല് എല്ലാം കുറഞ്ഞു എല്ലാ ആത്മാഭിമാനം എല്ലാം കുറഞ്ഞിട്ടുണ്ടായിരുന്ന സമയമാണ് കൂട്ടുകാരന്മാരെല്ലാം എൻ്റെ ചങ്ങാതിമാരെല്ലാം എന്നെ കളിയാക്കും നീ എന്താ ഇങ്ങനെ തടിച്ചിട്ട് നിനക്ക് എന്താ ഇങ്ങനെ ചിലവർ പറയുക എന്ന് വെച്ചാൽ പൊണ്ണനെ കണക്ക് ആക്കികൊണ്ട് മീൻസ് ഫിസിക്കലി പിന്നെ ശാരീരികമായിട്ട് കുറെ എന്തോ എന്തെല്ലാമോ ആക്കിക്കൊണ്ടിരുന്നിരുന്നു മീൻസ് എന്ന് വെച്ചാല് ബുള്ളിങ് എന്ന് വെച്ചാല് അവര് നമ്മളെ ഇതാക്കുന്നില്ലേ കളിയാക്കുന്നില്ലേ അതെല്ലാം ആക്കിയിട്ട് ഉണ്ടായിരുന്നു ആ ടൈമില് എൻറെ അഭിമാനം എന്നു വെച്ചാൽ മീൻസ് എൻറെ ആത്മാഭിമാനം എല്ലാം പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ കാലം അങ്ങനെ ഇങ്ങനെ ഒക്കെ എങ്ങനെ അത് മാറ്റി എടുക്കാമെന്ന് കുറെ ചിന്ത എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞാൻ എന്താക്കി എന്നുവെച്ചാല് കുറേനേരം ഇങ്ങനെ ചിന്തിച്ച് കുറെ ഇങ്ങനെ നോക്കി സെർച്ച് ചെയ്ത് നോക്കി കുറെ സെർച്ച് ആക്കിനോക്കി പിന്നെ കുറെ വുമൻസ് ഇല്ലേ അവർ കൊണ്ട് ആക്കണം അവർ കൊണ്ട് ആക്കിയാല് എക്സിർസൈസ് ഒക്കെ ചെയ്തുകഴിഞ്ഞാല് വ്യായാമം എല്ലാം ചെയ്തുകഴിഞ്ഞാല് നമുക്ക് ശരീരം നമ്മളുടെ ശരീരം അത് നമുക്ക് നമ്മളോര് രീതിയിലൊക്കെ മാറ്റിയെടുക്കണം അപ്പം അങ്ങനെ മാറ്റിയെടുക്കാൻ കുറെ പ്രക്രിയ എന്നു വച്ചാല് കുറെ ഇതുണ്ട് കടമ്പകൾ കടക്കണം കുറെ അപ്പോൾ ഞാൻ എന്താന്ന് വെച്ചാൽ കൊറോണ ടൈമില് ലോക്ഡോൺ ആയില്ലേ ആ ടൈമിൽ ആകുമ്പോൾ ഞാന് വീട്ടില് തന്നെ ഇരുന്ന് വീട്ടില് തന്നെ കുറച്ചും കൂടി നല്ലോണം തടി വച്ച് അങ്ങനെ തടി വച്ച് തടി വച്ച് വയറൊക്കെ കൂടി വയറെല്ലാം വലുതായി ഒര് ഹിപ്പപ്പൊട്ടാമസിനെ കണക്കെല്ലാം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിന് ഞാൻ എന്താക്കി എന്ന് വെച്ചാല് ലോക്ഡോൺ കഴിഞ്ഞല്ല ലോക്ഡോൺ കഴിഞ്ഞിട്ടാകുമ്പോൽ ഇങ്ങനെ ആർക്കും ജോലി ഒന്നും ഇല്ലാത്ത ടൈം അല്ലേ വീട്ടില് അവസ്ഥ എന്ന് വച്ചാല് വളരെ ഭയങ്കരമായി ഫുള്ള് മോശംഅവസ്ഥയുണ്ടായി ഭയങ്കരത്തില് അപ്പോൾ ആ ടൈമില് ഞാൻ എന്താക്കി എന്നു വെച്ചാല് ഷോപ്പ് ഷോപ്പുണ്ടായിരുന്നു ആദി ഷോപ്പ് അവിടെ അവിടെ ഞാൻ പണിക്ക് കയറി അവിടെ പണി എന്ന് വെച്ചാല് ന്നുവച്ചാല് ഭയങ്കര കഠിന അധ്വാനം വേണം നല്ല അധ്വാനം ഉള്ള പണിയാണ് അപ്പോൾ അങ്ങനെ അധ്വാനിച്ച് അധ്വാനിച്ച് കുറെ കുറെ ഇത് കഷ്ടപ്പെട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ട് തടിയെല്ലാം ഒന്ന് കുറഞ്ഞുവന്ന് തടിയല്ലാം കുറച്ചിട്ട് വന്നിട്ടായപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി നിനക്ക് എന്താടാ സുഖക്കേട് വന്നോ ആ ടൈമില് ഞാൻ ആകെ എന്തോ എന്തോപോലെ ആയി പിന്നെ ഞാന് ഞാൻ വിചാരിച്ച് ശരീരം ഒന്നുകൂടെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എടുക്കണമെന്ന് എനിക്ക് തോന്നി കുറച്ചും കൂടി നല്ലൊരു രീതിയിൽ ആക്കിയിട്ട് എടുക്കണമെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ എന്താക്കി ജിമ്മില് മെമ്പർഷിപ്പ് എടുത്ത് അവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് അതില് ഞാൻ രാവിലെ പോകാൻ തുടങ്ങി എത്രമണിക്ക് എന്നു വച്ചാല് അഞ്ച് മണിയാകുമ്പോൽ ജിമ്മില് എത്തും ഒരു ആറര ഏഴു മണി ആകുമ്പം ഞാൻ സാധാരണ ടൈമിന് ആൾക്കാര് വരുന്നതിനുമുമ്പ് ഞാൻ ഇറങ്ങിപ്പോകും അവിടുന്ന് എന്താന്നു വച്ചാല് അവിടെ വർക്ഔട്ട് എല്ലാം കമ്പ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും വീട്ടില് പോയിട്ട് കുറച്ചുനേരം റസ്റ്റ് എടുക്കും റസ്റ്റ് എടുത്തിട്ട് ഒര് എട്ടേമുക്കാല് ആകുമ്പം ഞാൻ വീട്ടിൽ നിന്ന് വീടും തിരിച്ച് ഷോപ്പിലേക്ക് പോകും മീൻസ് വർക്ക് ഉണ്ട് അല്ലേ അപ്പം അങ്ങനെ അവിടത്തേക്കുപോകും അങ്ങനെ തന്നെ കുറേക്കാലം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അതിന് ശേഷം അപ്പം പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുവാണ് അപ്പോൾ ലോക്ഡോൺ ടൈം ആയതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ഒര് സാഹചര്യം കുറച്ചു കുറവുണ്ടായിരുന്നു അപ്പോൾ ലോക്ഡോൺ കഴിഞ്ഞ് ഒന്നുഎടുത്ത് വന്ന് വൺ ഇയർ കഴിഞ്ഞ് സ്കിപ്പ് ചെയ്ത് ഞാൻ ഒരുകൊല്ലം എൻറെ വെറുതെ പോയി അങ്ങനെ വെറുതെ പോയിട്ടായിട്ട് ഒരുകൊല്ലം കഴിഞ്ഞിട്ടായിട്ട് അപ്പോൾ ഞാന് എന്താക്കി എന്ന് ഡിഗ്രി ജോയിൻ ആയി ഡിഗ്രി ജോയിൻ ആയിട്ട് അപ്പോൾ വർക്കും ഞാൻ ജോലിയും ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യും ഒഴിവ് ദിവസങ്ങളില് ജോലി ചെയ്യും വന്നിട്ടായിട്ട് പഠിച്ചു കൊണ്ടെല്ലാം ഉണ്ടായിരുന്നു അപ്പം എന്താണെന്ന് വെച്ചാല് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേ അങ്ങനെ പോയിക്കൊണ്ടേ കുറെ കാലം കഴിഞ്ഞു ഇല്ലേ അപ്പോൾ കുറേക്കാലം പാസ് ചെയ്തോണ്ട് നിൽക്കുമ്പോൾ ഞാൻ എന്താക്കി ജോലി എടുത്ത് ശമ്പളം തരുന്നില്ല ശമ്പളം ഞാൻ എന്താക്കി എന്നുവെച്ചാല് രാവിലെ ജിമ്മിന് പോയിട്ട് വന്ന് ആയിട്ട് നേരെ ഷോപ്പിൽ പോയിട്ട് തുറക്കും ഒര് എട്ട് എട്ടര ആകുമ്പോൾ ഷോപ്പ് തുറന്നിട്ടായിട്ട് അവിടുത്തെ പണിയെല്ലാം തീർത്തിട്ട് ഒമ്പത് മണി ആകുമ്പത്തേക്ക് ഞാൻ അവിടുന്ന് ഇറങ്ങും അങ്ങനെ ഇറങ്ങി വീട്ടിലേക്ക് പോയി അങ്ങനെ വീട്ടിലേക്ക്പോയി ഫുഡെല്ലാം കഴിച്ച് ഫ്രഷ് എല്ലാം ആയിട്ടായിട്ട് ഞാൻ യൂണിഫോം ഇട്ടിട്ട് കോളേജിലേക്ക് വരും അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് കുറെ കഷ്ടപെട്ടിട്ടായിട്ട് ലാസ്റ്റ് എനിക്ക് എൻറെ ഫിസിക്കലി എനിക്ക് സ്ട്രോങ്ങ് ബോഡിയായി മെന്റലി എൻറെ കോൺഫിഡൻസ് എല്ലാം എൻറെ എല്ലാം എന്നുവെച്ചാല് ശരീരപരമായും ആരോഗ്യപരമായിട്ടും എൻറെ എല്ലാം നേട്ടങ്ങള് ഞാന് കൈവരിച്ച് എനിക്ക് ഏതാ വേണ്ടുന്നതെന്ന് ഞാന് ഐ മീൻസ് ഞാൻ എന്താണ് പറയുന്നതെന്ന് വച്ചാല് നമുക്ക് അചീവ് ചെയ്യാൻ എന്നുവച്ചാല് എനിക്ക് നേടണമെന്ന് തോന്നിയത് ഞാന് നേടി എടുത്ത് അത്ര കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നിൽക്കുമ്പം ആണ് നമ്മളുടെ ഫാമിലിയിൽ നിന്ന് ചില കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് എൻറെ പഠിത്തം ഞാൻ മുന്നോട്ടുകൊണ്ട്പോയി എല്ലാം പ്രൊവൈഡ് ചെയ്ത് വീട്ടിലേക്കുള്ള വേണ്ടത് അങ്ങനെ എല്ലാം സെറ്റാക്കി എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ സമയം എന്നു വച്ചാല് ഞാനിങ്ങനെ പണിയെടുക്കുന്നതില്ലേ പണിയടുത്ത് പണിയടുത്ത് പണിയടുത്ത് പഠിച്ച് പഠിച്ച് അങ്ങനെ ഒരുമിച്ചു കൊണ്ടുപോകുമ്പം എൻറെ പപ്പായ്ക്കും മമ്മായ്ക്കും ഭയങ്കര അഭിമാനമാണ് എന്നു വച്ചാല് ബാക്കിയുള്ള കുട്ടികളെപ്പോലെ ബാക്കിയുള്ള പിള്ളേരെ പോലെ ഞാന് എൻറെ സമയം വെറുതെ കളഞ്ഞില്ല അവരെപ്പോലെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തേരാപാരാ നടന്നിട്ട് വെറുതെ കളഞ്ഞിട്ടായില്ല ഞാന് ഞാനാ സമയമെല്ലാം കറക്റ്റ് യൂസ് ആക്കിയിരുന്നു എന്നു വച്ചാല് കറക്റ്റ് അത്ര പെർഫെക്റ്റ് ആയിട്ട് യൂസ് ആക്കി പിന്നെ വേണ്ടാത്ത ദുശി ദുശീലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതേപോലെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒര് അഭിമാനം തോന്നിയതും എൻറെ മനസ്സ് നിറഞ്ഞും കണ്ണ് നിറഞ്ഞും ഒര് സമയമാണ് അത് അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്തിട്ടാവുമ്പോൾ അതാണ് ഞാൻ ഇത്രെയും മീൻസ് ഞാന് അച്ചീവ് ചെയ്തതെന്നു വെച്ചാല് ഞാന് നേടിയനേട്ടങ്ങള് എന്നുപറഞ്ഞാല് അതാണ് ഇന്ന് ഏറ്റവുംകൂടുതൽ അഭിമാനം തോന്നിയതും അങ്ങനെയാണ് എൻറെ ഫാദർ എന്നോട് വിളിച്ചിട്ട്പറഞ്ഞു ഓക്കേ നീ ഐ ആം പ്രൗഡ് ഓഫ് യു നിനക്ക് നീ നിന്നെ നീ തന്നെ എനിക്കുള്ള അഭിമാനം ആകുന്നുണ്ട് എൻ്റെ മകനായതില് എനിക്ക് അഭിമാനം ഉണ്ട് അങ്ങനെ പറയുമ്പോൾ കിട്ടുന്നൊരു ഫീല് ഇണ്ട് അത് വേറെ എവിടേയും കിട്ടുകയില്ല മോനെ കാര്യമായ ഫീല് എന്ത് ഫീലാന്നറിയുമോ അത് അപ്പോൾ അത് അനുഭവിച്ചാലേ നമുക്ക് അനുഭവിച്ചാലേ അത് ഇതറിയൂ അത്രക്കും നല്ലൊരു ഫീലാണത് അങ്ങനെയാണ് ഇത് ഞാന് നേടിയത് എൻറെ ഏറ്റവുംവലിയ നേട്ടം എന്നുപറയുന്നത് എൻറെ ശരീരമാണ് എൻറെ ഏറ്റവുംവലിയ നേട്ടം എന്നുപറയുന്നത് എൻറെ ശരീരമാണ് എൻറെ ശരീരം എൻറെ വിദ്യാഭ്യാസം പിന്നെ എൻറെ അഭിമാനം എന്നുപറയുന്നത് ഞങ്ങൾക്ക് ആ ടൈമിന് അഭിമാനം തോന്നിയതെന്ന് വെച്ചാല് ഞാൻ ഇങ്ങനയായത് ഞാൻ ഇങ്ങനെ മീൻസ് എന്താന്നുവച്ചാല് ഞാന് വെറുതെയൊന്നും കളഞ്ഞില്ല അല്ലെങ്കിൽ എല്ലാം നല്ലതിന് യൂസ് ആക്കിയിരുന്നു കറക്റ്റ് ആയി കറക്റ്റ് സമയത്ത് ഇനിയും കുറെ നേടാനുണ്ട് അതൊക്കെ ഭാവിയില് ഇൻഷാ അള്ളാഹ് നേടണം എല്ലാം ശെരിയാകണമെന്ന് നല്ലോണം ഉണ്ട് മീൻസ് അപ്പോൾ അതാണ് എൻറെ ഏറ്റവുംവലിയ നേട്ടം അഭിമാനം എന്നാലായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് മീൻസ് എല്ലാവരോടും പറയാനല്ല ഞാൻ ഈ അഭിമാനം ചെയ്ത് ഇതെല്ലാം ഞാൻ ചെയ്തത് എന്നു വെച്ചാല് നമ്മൾ പറയുന്നത് നമ്മളെ വെറുത്ത് പുറമെ പറഞ്ഞാലും നമുക്ക് അച്ചീവ് ചെയ്യുന്നതിൻറെ ഇതിലിപ്പോൾ ഇതുണ്ടാകുമല്ലൊ എന്ന് വെച്ചാല് അച്ചീവ് ചെയ്യുന്നതിൻറെ ഒര് രുചി എന്താന്നുവെച്ചാൽ അനുഭവിച്ചറിയാണ്ട് രുചി നേരിട്ട് അപ്പം നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന കാര്യം ആരോടും പറയാതെ നിൽക്കണം നമ്മൾ അച്ചീവ് ചെയ്തുകഴിഞ്ഞിട്ട് അവർക്ക് കാണിച്ചുകൊടുക്കണം അപ്പോൾ ആന്ന് അതിന്റൊരു ഫീലിംഗ് നമുക്ക് സെറ്റായിട്ട് കിട്ടുക അപ്പോൾ അച്ചീവ് ചെയ്യുന്നതിൻറെ ഫീലും അച്ചീവ് ചെയ്തുകഴിഞ്ഞിട്ടൊരു കിട്ടുന്നൊരു ഫീലും രണ്ടും രണ്ട് ഫീലിംഗ് ആണ് അത് എന്നുവെച്ചാല് അത് അങ്ങനെ ആണ് അതിൻറെ ഒര് രീതി അങ്ങനെ ആണ് അപ്പോൾ ഒര് എന്നു വവെച്ചാല് അങ്ങനെ ഒക്കെ ചെയ്തുകഴിഞ്ഞാല് ഇങ്ങനെ ഒക്കെ ലാഭം ഇപ്പോൾ ഇത് ഞാൻ കുറെ മുൻപേ ചെയ്യേണ്ടതായിരുന്ന് അപ്പം എനിക്ക് ആ ടൈമില് എന്ന് വെച്ചാല് ഈ തലയ്ക്ക് ബുദ്ധി വച്ചില്ല വീട്ടില് ഇപ്പം ഈ സമയം കറക്റ്റ് ബുദ്ധിയെല്ലാം വന്നത് എല്ലാത്തിനും അതിൻറെതായ ഒര് സമയമുണ്ട് ആ കറക്റ്റ് സമയമാകുമ്പോൾ എല്ലാം നമ്മളില് എത്തി നമ്മളിലേക്ക് എത്തും അതെല്ലാം എഴുതി വച്ചതല്ലേ മാറ്റാൻ കഴിയില്ലല്ലോ തിരുത്താൻ കഴിയില്ലല്ലോ എല്ലാം റിട്ടേൺ അല്ലെ എല്ലാം എഴുതിവച്ചതല്ലേ അങ്ങനൊക്കെ ആണ് നടക്കുന്നത് ഇതാണ് ഞാൻ ചെയ്ത എൻറെ ഏറ്റവുംവലിയ നേട്ടം എന്നുപറയുന്നത് പിന്നെ അഭിമാനം തോന്നുന്നതെന്ന് വെച്ചാല് എൻറെ ഉപ്പ എന്നോട് പറഞ്ഞ് നീ എനിക്ക് നിന്നെ ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു അത് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതല് അഭിമാനം തോന്നിയിരുന്നത് ഇതാ കേട്ടോ ഇപ്പോൾ ഇങ്ങനെയല്ലാം കുറെ കഥകള് ഉണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിലും അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് എല്ലാവരും ചെയ്യണമെന്നു വെച്ചാല് അവരുടെ മനസ്സിലൊരു കഠിന തീരുമാനമാണ് ഉറച്ച തീരുമാനം ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമെ അടുത്തേക്ക് അത് എത്താൻപറ്റു അപ്പം നമ്മൾ നമ്മള് തന്നെ കണ്ടുപിടിച്ച് നമ്മള് തന്നെ സെൽഫ് റീയലിസഷൻ ചെയ്യേണ്ടതാണ് നമ്മള് സ്വയം മനസ്സിലാക്കേണ്ടതാണ് നമ്മള് സ്വയം മനസിലാക്കിയിട്ട് മാറുമ്പം അത് കറക്റ്റ് അറിയുന്നത് നമ്മൾ അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നാണ് എൻറെ ഒരു അഭിപ്രായം എന്നുവച്ചാല് നല്ല രീതിയിൽ ഞാൻ പറയുന്നത് വെച്ചാല് എല്ലാവരും അങ്ങനെ ചെയ്തിട്ട് ശെരിയാവണമെന്നാണ് അപ്പോൾ എല്ലാം നടക്കും നമ്മള് വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല നമ്മൾ അത് കഠിനമായിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കണം കഠിന കഠിനമായിട്ട് എന്നിട്ട് അത് നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുമ്പം കിട്ടാണ്ട് എവിടെ പോകാൻ അല്ലെങ്കിൽ അത് നമ്മളത് അച്ചീവ് ചെയ്യും എന്നുപറഞ്ഞാൽ നമ്മൾ ഒന്നുങ്കില് നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മളത് നേടണം പോവും അത്രേയുള്ളു എന്നു വെച്ചാല് അത് തന്നെ അത്രയും ഉള്ളു നമുക്ക് പറയാൻ എന്നു വെച്ചാല് നമ്മളുടെ ഏറ്റവുംവലിയ നേട്ടം എന്നു വെച്ചാല് എൻറെ ശരിരൂം എൻറെ വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയതില് ഏറ്റവുംവലിയ നേട്ടം പിന്നെ അഭിമാനം തോന്നുന്നത് എന്നു വെച്ചാല് എൻറെ ഉപ്പായ്ക്കും ഉമ്മായ്ക്കും ഒര് ബുദ്ധിമുട്ടും വരുത്തിയില്ല കാരണം ഞാനവരെ നോക്കി എന്നുള്ളതാണ് ഏറ്റവുംകൂടുതല് അഭിമാനിക്കാൻ തോന്നിയ നിമിഷം ആ ടൈമിന് കിട്ടിയൊരു ഫീല് വേറെ ഏതിനും എനിക്ക് കിട്ടിയിട്ടില്ല നല്ലൊരു നല്ലൊരു അനുഭവം തന്നെയാണ് അത് നല്ലൊരു അനുഭവമാണെന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എല്ലാം അങ്ങനെ ശെരിയാവും ഓക്കേ